നമുക്കറിയാം വിദ്യാർത്ഥികൾ അനവധി ഭാഷകൾ പഠിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ് ഇത് തീർച്ചയായിട്ടും യോജിക്കുന്നു ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ കേരളീയരാണ് നമ്മുടെ തനത് ഭാഷ അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് മലയാളം എന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ മലയാളം എന്ന ഭാഷ ഉപകരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ മലയാളികളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളീ മലയാളമെന്നു പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്കറിയാം നമ്മൾ എജ്യൂക്കേഷ്ണലിൽ എജ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലേറ്റവും മുമ്പോക്കം നിൽക്കുന്ന ഒരു ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിലൊരു സംസ്ഥാനത്തിലൊന്നാണ് കേരളം അപ്പം സ്വാഭാവികമായിട്ടും എന്താ കേരളത്തിലുള്ള ആൾക്കാർ പുറത്തോട്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ഇന്ത്യയ്ക്ക് പുറത്തോ ആയി നമ്മൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ മറ്റനേകം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സഞ്ചരിക്കാറുണ്ട് ആ സഞ്ചരിക്കുന്ന വഴികളിലുടനീളം നമ്മൾ അനേകം വ്യക്തികളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് ഈ ലാംഗ്വേജ് ഈ മലയാളം എന്ന ലാംഗ്വേജിനു പുറമേ മറ്റ് ഭാഷകൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ മറാട്ടി തുടങ്ങിയ ലാംഗ്വേജ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി ഈ രണ്ട് ഭാഷകൾ അറിഞ്ഞിരുന്നാൽ നമുക്കറിയാം ഇംഗ്ലീഷും പറയും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലോകോത്തര ഭാഷ അറിഞ്ഞിരുന്ന നമുക്ക് എവിടെയും ചെന്നു പിടിച്ച് നിൽക്കാനാകും പക്ഷെ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ മാതൃഭാഷയാണ് അതു പോലെ തന്നെ കേരളത്തിന് പുറത്തോട്ട് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഹിന്ദിയാണ് ഹിന്ദിയിൽ നിന്ന് പറയുന്നൊരു ഭാഷ ബാക്കിയുള്ളവർക്ക് സുപരിചിതമാണ് പരിചിതമാണ് എന്നാൽ നമുക്കതപരിചിതമാണ് നമ്മളത് പഠിക്കേണ്ടതിൻറ്റാവശ്യകത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു കാലത്ത് അപ്പം നമുക്ക് നമ്മൾ പറഞ്ഞു വരുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ഭാഷ നമുക്ക് നമ്മുടൊരു ജോലിയുടെ മേഖലകളിലാണെങ്കിലും നമ്മളൊരു അഭിപ്രായം പറയുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അല്ലെങ്കിലെന്താ നമുക്കറിയാം ഇംഗ്ലീഷെന്നു പറഞ്ഞൊരു ഭാഷ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഭാഷകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാഷകളെന്നു പറയുന്നത് മനുഷ്യന് മനുഷ്യന് ആശയ വിനിമയം നടത്താൻ കഴിയുന്ന ഒരു ആശയ ആശയ വിനിമയ കേന്ദ്രമാണ് അല്ലെങ്കിൽ നമുക്കറിയാം നമുക്കൊരാൾക്ക് ഒരാൾക്ക് ജസ്റ്റൊരുദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് മലയാളം ലാംഗ്വേജ് മലയാളം ഭാഷ മാത്രമേ അറിയുകയുള്ളൂ മറ്റൊരാൾക്ക് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അറിയുകയുള്ളൂ അ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും കാരണം നമുക്ക് ആശയ വിനിമയം നടത്താൻ സാധിക്കില്ല കാരണം അത്രധികം അത്രയധികം ബുദ്ധിമുട്ടനുഭവിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനായിരിക്കും നമുക്ക് നമുക്ക് ഭാഷ അറിയാതെ വരുന്നൊരു കാര്യം അപ്പം വിദ്യാർത്ഥികളായ നാം അല്ലെങ്കിൽ ഉറപ്പായും കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായും മറ്റു ഭാഷകൾ അല്ലെങ്കിൽ അനവധി ഭാഷകൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നമുക്ക് ഭാവിയിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുക ഉപകരിക്കുന്ന ഏതിലൊരു സന്ദർഭത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഷകളുടെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കപ്പെടും നമുക്കറിയാം എന്താ ഒട്ടനേകം രാജ്യങ്ങളുണ്ട് ഈ ഒരു ലോകത്തിൽ ഒട്ടനേകം സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടനേകം ജില്ലകളുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പം എന്താ ഇവിടെ എല്ലാം നമുക്കറിയാം നമ്മളൊരു നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ നമ്മൾ ഒത്തിരിയധികം സ്ഥലങ്ങളിൽ സഞ്ചരിക്കേണ്ടവരാണ് അപ്പം നമുക്ക് നമ്മുടെ നമ്മുടാവശ്യം നടത്തിയെടുക്കാനും മറ്റുള്ളവരോടു സംസാരിക്കാനും ഈ ഭാഷകളുടെ പ്രധാന്യം എന്നു പറയുന്നത് വളരെ വലുതാണ് ഭാഷകളെ സംരക്ഷ് ഭാഷ എന്നു പറയുന്നത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞ് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാകാനും തിരിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനും സഹായിക്കുന്നു തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ ഭാഷകൾ പറ പഠിക്കേണ്ടത് തികച്ചും അഭികാമ്യമാണ് അല്ലെങ്കിൽ അനുയോജ്യമാണ് ഭാഷകളെ സംബന്ധിച്ച് ഒരു എന്താ എനിക്ക് തോന്നുന്നത് ഭാഷകളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ ഭാഷകളുടെ കാര്യത്തിൽ പുരോഗതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിപ്പോഴേ തന്നെ തുടങ്ങി വെക്കുന്നതാണ് നല്ലത് ചെറുപ്പം മുതൽ നൽകി വരുന്ന വിദ്യാഭ്യാസത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം എന്നീ ലാംഗ്വേജുകളുൾപ്പെടുന്നത് കുട്ടികളുടെ മാനസിക നിലവാരത്തെയും അതു പോലെ തന്നെ ഭാ നിരവധി സു സുപ്രധാനമായ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു ലാംഗ്വേജിനെ പ്രസക്തി അല്ലെങ്കിൽ ഭാഷകളുടെ പ്രസക്തി എന്നു നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ് അത് ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ഏതു കാലഘട്ടത്തിലും നമ്മൾ വളരെയധികം നന്നായി ഉപയോഗിച്ചാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഭാഷകളുടെ നല്ല ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഭാഷകളുടെ സുപ്രധാനമായ അല്ലെങ്കിൽ പ്രധാനമായ ലളിതപരമായ ലാംഗ്വേജുകൾ അല്ലെങ്കിൽ ലളിതപരമായ സംസാരം മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഠിക്കേണ്ട ഏറ്റവും സുപ്രദമായ സുപ്രധാനമായ ലാംഗ്വേജുകൾ അവ പഠിക്കാൻ വിദ്യാർത്ഥികളായ നാം ശ്രമിക്കേണ്ടതും അതിൻ്റെ പ്രാധാന്യം വളരെ വലുതുമാണ് താങ്ക് യൂ